ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ് എനിക്ക് ഈ ഫോണിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഒന്നും ഇല്ല എനിക്ക് നെഗറ്റീവ് റിവ്യൂ ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് വേറൊന്നും കൊണ്ടല്ല ഇതിൻ്റെ ക്യാമറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു ഭയങ്കര പുക മൂടിയത് പോലെയാണ് സെൽഫി ക്യാം കുഴപ്പമില്ല പക്ഷേ ഇതിന്റെ ബാക്ക് ക്യാമിൽ ഒരു പിക്ക് എടുക്കുമ്പോൾ അതിൽ ഭയങ്കര ബ്ളർ ആയിട്ട് എന്തൊക്കെയോ ഒരു ഇങ്ങനെ പുകയൊക്കെ മൂടിയത് പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് അതിൻ്റെ ക്യാമറ സുഖമില്ല നല്ല ക്യാം ആണെന്ന് വിചാരിച്ചാണ് എടുത്തത് പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ബാക്ക് ക്യാമും ഫ്രണ്ട് ക്യാമും അത്രയ്ക്ക് രസമൊന്നും ഇല്ല പക്ഷെ പിന്നെയും ബാക്ക് ക്യാമിനേക്കാളും കുറച്ച് ഭേദം എന്ന് പറയുന്നത് ഫ്രണ്ട് ക്യാം തന്നെയാണ് പിന്നേ അതിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ടെന്നൊക്കെ വിചാരിച്ച് എടുത്തതാണ് പക്ഷെ ഒട്ടും സ്റ്റോറേജ് കിട്ടുന്നില്ല പെട്ടന്ന് സ്റ്റോറേജ് ഫുൾ ആകുകയാ അതുപോലെ തന്നെ ഗെയിമിംഗ് ഓപ്ഷൻ ഒന്നും കിട്ടുന്നില്ല പെട്ടന്നു തന്നെ ഫോൺ ഹീറ്റാകുകയാണ് ഗെയിം എടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കളിക്കുമ്പോഴേക്കിനും ഫോണ് വല്ലാണ്ട് ഹീറ്റ് ആവുകയാണ് പിന്നെ അതു പോലെ ചാർജ് ഒട്ടും തന്നെ നിൽക്കുന്നില്ല പെട്ടെന്ന് ഒക്കെ ചാർജ് തീർന്നു പോകുകയാണ് വീണ്ടും ചാർജ് ചെയ്യാനിടുമ്പോൾ ഇങ്ങനെ വളരെ നേരം ഞാനിന്ന് ചാർജ് ചെയ്യാനിട്ടിട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ടാണ് ഒന്ന് ഫുൾ ചാർജ് ആയത് കുറേ നേരം കൊണ്ടാണ് ഫോൺ ചാർജാവുന്നത് എത്ര വാൾട്ടിന്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ടും ആ ഒരു ഇത് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഫോണിലാണെങ്കിൽ ഭയങ്കര നോയ്സ് കേൾക്കുന്നുണ്ട് സൗണ്ട് ഓരോ ആ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് നോയ്സ് കയറിവരുന്നുണ്ട് ഒരാളെ കോൾ ചെയ്യുമ്പോഴാണേലും നമ്മുടെ വോയിസ് ഭയങ്കര ബ്രേക്ക് ആയിട്ട് അതിൽ നോയ്സ് ഒക്കെ വന്നിട്ടാണ് പോവുന്നത് അതുപോലെ തന്നെ ക്യാമറ അതിനും ഒരു ഇതൊക്കെ വരുന്നുണ്ട് പിന്നേ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറേജാണ് അതും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന് ഫോണിനുള്ളത്